പത്രമായിരിക്കും കുറച്ചും കൂടെ നന്നാവുക കാരണം അതിലാണ് കൂടുതൽ കുറച്ചും കൂടെ ഒരു സത്യസന്ധത വരിക ചാനലുകളിലെന്ന് പറഞ്ഞാൽ അവർ ഒരു മത്സരമാണ് ഏതൊരു വാർത്ത കയ്യിൽ കിട്ടിയാലും അവർ അത് വളച്ചൊടിച്ച് വേറെ ഒരു രീതിയിലായിരിക്കും പറയുക അതിൻ്റെ നേരായ ഒരു വശത്തിൽ കൂടി ആയിരിക്കില്ല അവരുടെ സംസാരം പിന്നെ എന്നാൽ ചാനലുകൾക്ക് പറഞ്ഞാൽ എതെങ്കിലുമൊരു രാഷ്ട്രീയ ബേയ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാവും അതിന് മേൽക്കോയ്മ കൊടുത്തിട്ടായിരിക്കും അവരുടെ സംസാരവും പിന്നേ നമ്മൾക്ക് പത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് ഇങ്ങനെ വായിക്കണം മറ്റേത് എപ്പോഴും നമുക്ക് ടീവി ഓണാക്കിയാലും ഏത് ചാനലിലും വാർത്തകളുണ്ടാവും കാ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കണ്ടാൽ മതി മറ്റേത് ഇരുന്ന് വായിക്കണം പിന്നെ അതിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എവിടെ എപ്പം വേണമെങ്കിലും നമുക്ക് നമ്മളെ ഫോണിലായാലും എവിടെ ആയാലും നമുക്ക് നമ്മൾ അത് ടീ വി ആയാലും ഫോണായാലും ഓണാക്കിയാൽ നമുക്ക് വാർത്ത കാണാം പിന്നെ അത് നമുക്ക് ഒരു സൗകര്യപ്രദമാണ് പിന്നെ പത്രത്തിൽ പറഞ്ഞാൽ അങ്ങനെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യും ജനങ്ങളെന്നുള്ള ആ ഒരു ഭയപ്പാട് കൊണ്ട് അതിൽ അധികം കള്ളത്തരങ്ങൾ വരാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സത്യത കൂടുതലും സത്യസന്ധമായി തന്നെയാണ് പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പത്രവും മീഡിയയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരൂ ഹാർട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയൊക്കെ നടക്കുന്ന സമയത്ത് നിന്നാൽ പത്രത്തിലാണേൽ നമുക്ക അതിൻ്റെ ഒരു ചിത്രം മാത്രമേ കാണൂ മറ്റേ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും ടീവിയിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലൈവായിട്ട് അതായത് ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ കാണാം ഐൻ്റെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ആ ഒര് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾക്ക് ഇത് ഇരുന്ന് കാണാൻ കഴിയും